സാംസ്കാരികപരമായിട്ട് ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും വളരെ അന്തരത്തിൽ തന്നെയാണ് രണ്ട് രാജ്യങ്ങൾ പോലെയുള്ള വ്യത്യാസങ്ങൾ നമ്മള് നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും വടക്കേ ഇന്ത്യ എന്ന് പറയുമ്പോള്ത്തന്നെ ഹിന്ദി ബെൽറ്റാണ് ഹിന്ദിയാണ് അവിടുത്തെ ഒരു മെയിൻ മുഖ്യഭാഷ എല്ലാവിധ ഒട്ടുമിക്ക സ്റ്റേറ്റിലും ഹിന്ദി ഒരു മുഖ്യഭാഷയാണ് പക്ഷേ സൌത്ത് ഇന്ത്യ തെക്കേ ഇന്ത്യയിലേക്ക് വരുമ്പോള് ഹിന്ദി ഒരു ഭാഷയെയല്ലാതായി മാറുകയാണ് കേവലം ആന്ധ്രായിൽ മാത്രം കുറച്ച് ഹിന്ദി സംസാരിക്കുന്നതല്ലാതെ കർണാടകയിലും തമിഴ്നാട്ടിലും കേരളത്തിലും ഗോവയിലും ഈ മഹാരാഷ്ട്രയില് പോലും ഹിന്ദി കേള്ക്കുന്നതല്ലാതെ മറാട്ടയാണ് അവിടുത്തെ മെയിൻ ലാങ്ങുവേജ് ഇപ്പം ഹിന്ദി മഹാരാഷ്ട്ര കഴിഞ്ഞാല്പ്പിന്നെ ഹിന്ദി മാത്രമേ മെയിനായിട്ട് സംസാരിക്കുന്നതെങ്കില് സൌത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോള് അവരുടേതായ ലാങ്ങുവെജുകളാണ് കൂടുതല് കോമ്മൺ ആയിട്ടുള്ള ലാങ്ങ്വേജ് വളരെ കുറവാണ് കേട്ടോ നമുക്ക് സാധിക്കുന്നത് ഇപ്പം ഇപ്പം മാധ്യമങ്ങളുടെ കടന്നുകയറ്റം കൊണ്ട് ഹിന്ദിയൊക്കെ കുറച്ചൊക്കെ ദഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സൌത്തിന്ത്യയില് എന്നാലും ഭാഷയിൽ വളരെ വളരെ വ്യത്യാസമാണ് കേരളത്തിൽ മലയാളവും തമിഴ്നാട്ടിൽ തമിഴും കർണാടകത്തില് കന്നഡയും ആന്ധ്രയിൽ തെലുംഗും മഹാരാഷ്ട്രയില് മറാഠിയും വാണരുളുന്ന ഒരു ഒരു ഭാഷാ സംസ്കാരമാണ് നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത് ഇനി ഭക്ഷണത്തെ സംബന്ധിച്ച് പറയുമ്പോള് കാലാവസ്ഥ പോലെ തന്നെ കാലാവസ്ഥ വടക്കേ ഇന്ത്യയിലെ എക്സ്ട്രീം ക്ലൈമറ്റ്സ് ഉത്തരേന്ത്യയില് എക്സ്ട്രീം ക്ലൈമറ്റ്സ് അനുഭവപ്പെടുമ്പോള് തെക്കേ ഇന്ത്യയിലെ ഒരു മോഡെറേറ്റ് ആയിട്ടുള്ള കാലാവസ്ഥയാണ് നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭക്ഷണരീതിയിലും നമുക്ക് ഒത്തിരി വ്യത്യാസങ്ങള് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ തെക്കേ ഇന്ത്യയില് അരിയും അരിയോടനുബന്ധിച്ചുള്ള ഭക്ഷണങ്ങളുമാണ് പൊതുവെ ഉപയോഗിക്കുന്നതെങ്കില് വടക്കേ ഇന്ത്യയില് ഗോതമ്പും ഗോതമ്പിനോട് അനുബന്ധിച്ചുള്ള ഭക്ഷണരീതിയാണ് കൂടുതലും കാണുന്നത് തെക്കേ ഇന്ത്യയിലെ പിന്നെ മൽസ്യ മാംസ്യങ്ങള് കൂടുതല് കഴിക്കുമ്പോള് വടക്കേ ഇന്ത്യയില് മൽസ്യ മാംസ്യങ്ങള് അത്രയ്ക്കധികം കാണാനായിട്ട് സാധിക്കില്ല കാശ്മീരിൽ മാത്രമാണ് കുറച്ച് നമുക്ക് മാംസങ്ങളുടെ ഉപയോഗം എന്നാലും അവിടെയും സസ്യവും സസ്യാഹാരമാണ് അവിടെയും അവിടെയും പൊതുവായിട്ടുള്ളത് അപ്പോള് തീർച്ചയായിട്ടും പിന്നെ ഭക്ഷണ കാര്യത്തിൽ കാലാവസ്ഥ കാര്യത്തിലും വളരെ വ്യത്യാസം പക്ഷേ ഇനി അടുത്തത് വസ്ത്രമാണ് വസ്ത്രത്തിൻ്റെ കാര്യത്തിലും നമുക്ക് ഓരോ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്ന് പറയാന് വസ്ത്രത്തിൻ്റെ കാര്യത്തില് എടുത്തുപറയാൻ ഒക്കത്തില്ല കാരണം വടക്കേ ഇന്ത്യയിലെ വസ്ത്രം ഓരോ സംസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നില്ക്കുന്നതുപോലെതന്നെ തെക്കേ ഇന്ത്യയിലും സംസ്ഥാനങ്ങളിൽ ഓരോ വസ്ത്രത്തിൻ്റെ രീതികള് നമുക്ക് വ്യത്യാസപ്പെട്ട് നില്ക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ് കൂടുതലും വടക്കേ ഇന്ത്യയില് കളർഫുൾ ആയിട്ടുള്ള പല പല ഡ്രസുകള് ആഡംബരത്തിൻ്റെ ഡ്രസുകള് കാണുമ്പോള് തെക്കേ ഇന്ത്യയിലെ ഒരു സാംസ്കാരിക സാംസ്കാരിക മായ ഒരു ഡ്രസ് വസ്ത്രരീതി നമുക്ക് തെക്കേ ഇന്ത്യയില് നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയം പറയുകയാണെങ്കില് വടക്കേ ഇന്ത്യയിലെ രാഷ്ട്രീയം വടക്കൻമാരുടെ രാഷ്ട്രീയം ഈ വിദ്യാഭ്യാസപരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമ്മുടെ തെക്കേ ഇന്ത്യയില് കൂടുതല് നമുക്ക് സാക്ഷരതയുടെ കാര്യത്തിൽ തെക്കേ ഇന്ത്യ മുന്പന്തിയിലാണ് അതേപോലെ എഡ്യുകേഷൻ്റെ കാര്യത്തിലും തെക്കേ ഇന്ത്യ മുൻപന്തിയിൽ തന്നെയാണ് വടക്കേ ഇന്ത്യ അത്രയ്ക്ക് തെക്കേ ഇന്ത്യയുടെ അത്രയും പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് നമ്മുടെ മദ്രാസ് മേഖലയില് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുടെ ഇംഗ്ലീഷ് ഇത്തിരി സ്റ്റാന്ഡേർഡ് ഇംഗ്ലീഷ് തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഹിന്ദി വടക്കേ ഇന്ത്യയില് മുന്നിട്ട് നില്ക്കുന്നതുകൊണ്ടാകാം ചിലപ്പോള് ഇംഗ്ലീഷിനവിടെ അത്രയ്ക്ക് സ്റ്റാന്ഡേർഡ് പോരെന്ന് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞുവെന്നേയുള്ളൂ തീർച്ചയായിട്ടും വടക്കേ ഇന്ത്യയും തെക്കേ ഇന്ത്യയും ഈ ഭാഷയിലും ഭക്ഷണത്തിലും വസ്ത്രത്തിലും കാലാവസ്ഥയിലും സാക്ഷരതയിലും എല്ലാം വ്യത്യാസമുണ്ട് ഭൂഘടന സംബന്ധിച്ച് പറയുകയാണെങ്കില് ഭൂഘടന നമ്മുടെ തെക്കേ ഇന്ത്യയില് ചുറ്റും മൂന്നു ചുറ്റും കടല് ഉള്ളതുകൊണ്ട് ഒരു തീരപ്രദേശം കാണാൻ വേണ്ടി സാധിക്കും വടക്കേ ഇന്ത്യയില് നമുക്ക് ഹിമാലയവും പിന്നെ മറ്റെ ഇത് പഹാഡ് ഏരിയ അതായത് ഏരിയയാണ് കൂടുതലും നമുക്ക് കാണാം മലമടക്കുകളാണ് നമുക്ക് വടക്കേ ഇന്ത്യയില് ഈ അതിർത്തികളില് കാണാൻ സാധിക്കുന്നത് പിന്നെ ഭൂഘടനയില് പിന്നെ നമുക്ക് അധികം കൂടുതല് കാണാനാകില്ല പ്രത്യേകിച്ച് നമുക്ക് ഭാഷയിലും ഭക്ഷണത്തിലും ഭാഷാ ഭക്ഷണം വസ്ത്രം കാലാവസ്ഥ ഈ നാലു മേഖലകളില് അതിൻറ്റേതായ രീതിയിലുള്ള വ്യത്യാസം ഈ മൂന്ന് മേഖലകളിൽ ഈ ഈ രണ്ട് ദക്ഷിണേന്ത്യയും ഉത്തരേന്ത്യയും തമ്മില് വളരെ വ്യത്യാസത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്